ഇപ്പോൾ നമ്മള് പാലക്കാട് ജില്ലയില് നോക്കുകയാണെന്ന് പറയുമ്പോൾ സാമൂഹിക സേവന പദ്ധതികളൊക്കെ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ പദ്ധതികളൊക്കെ ഒരുപാട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികവും ഗ്രാമ പ്രദേശങ്ങളാവുമ്പോൾ കർഷകർ അല്ലെങ്കിൽ അങ്ങനെ ആസ്തി സമ്പത്തെന്ന് പറയാൻ വലിയ രീതിയിലൊന്നും ഇല്ലാത്ത അധികം പാവപ്പെട്ട ഒരു ഒരൂ മീഡിയം ലെവലിൽ ജീവിക്കണ അന്നന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പാലക്കാട് ജില്ലയില് കൂടുതല് ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഇൻട്രസ്റ്റിങ്ങായിട്ട് ഒരു പദ്ധതി സർക്കാരിൻറെ ഒരു പദ്ധതി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുറെ അമ്മമാർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകണ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ കുറേ അമ്മമ്മാര് പങ്കെടുത്തു അവര് പാസ്സായി പത്താം ക്ലാസ് പാസ്സായി അത് നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാരും അവർക്ക് അത്യാവശ്യം വായിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവു കിട്ടി പിന്നെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മള് ദാരിദ്ര്യ നിർമാർജ്ജനം പരിപാടി നോക്കുകയാണെന്ന് പറയുമ്പോൾപ്പോൾ നമ്മുടെ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വികസന കാര്യങ്ങളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ഏന്താ പറയുക വീട് വീടല്ല വീടു പോലെ ഇപ്പോൾ അവരുടെ ആദിവാസി മേഖലകളാണെങ്കിലും അവരുടെ കുടിലിലും കാര്യങ്ങളും ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ശൌചാലയങ്ങള് പണിയാൻ പറ്റി അവർക്ക് വേണ്ട അടിസ്ഥാന ഭക്ഷണം എന്തൊക്കെയാണോ അത് അവർക്ക് അവിടെ എത്തിക്കാൻ പറ്റി അങ്ങനെയുള്ള നമുക്ക് കുറെ അധികം വികസന പ്രവർത്തനങ്ങള് നമ്മളെ പാലക്കാട് ജില്ലയിൽ കണ്ടു വരുന്നുണ്ട്